കോഴിക്കോട് ജില്ലയിൽ അതായത് ഞങ്ങളുടെ ജില്ലയിൽ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഭക്ഷണത്തിനൊക്കെ നല്ല ജനപ്രിയമായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുള്ളൊരു ജില്ലയാണ് നമുക്ക് നമുക്ക് അതായത് നമ്മുടെ സ്പോട്ട് അതായത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം കടലിലാണെങ്കില് കടല് അതായത് കടൽ മത്സ്യത്തിൻ്റെ അതായത് നമുക്ക് കടലിലെ മത്സ്യങ്ങളുടെ ഒരുപാട് വിഭവങ്ങളുണ്ട് അതായത് സീ ഫുഡ് എന്ന് പറഞ്ഞിട്ടുതന്നെ നമുക്കൊരു കോഴിക്കോടൊരു ഒന്നല്ല ഒന്നിലധികം കടകള് കാര്യങ്ങളൊക്കയുണ്ട് അതായത് നമുക്ക് കടലിലെ ഭക്ഷണങ്ങള് മാത്രം കിട്ടുന്നത് അതൊക്കെ അടിപൊളി ആണ് അതൊക്കെ കഴിക്കാനോരോ ജില്ലകളിൽ നിന്നും അവിടുന്നും ഇവിടുന്നുമൊക്കെ കുറെ ഒരുപാട് പേരുകളൊക്കെ വരും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് മലബാർ ബിരിയാണി മലബാർ ബിരിയാണി നമുക്ക് ഭയങ്കര ഫേമസ്സാണ് അതേപോലെ ബിരിയാണിൻ്റെ മാത്രം സ്പോട്ടുകളായിട്ടുള്ള ഒരുപാട് കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പം കോഴിക്കോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ഥലത്തു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ബിരിയാണി കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അതുതന്നെ വലിയൊരു അതായത് ജനപ്രിയമായിട്ടുള്ള ഒരുപാട് ബിരിയാണികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ കായുപ്പേരി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് കോഴിക്കോട് ഉണ്ട് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഫുഡിനു തന്നെ നമുക്കിപ്പം ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതല്ലാണ്ട് അതായത് നമുക്ക് ആ ഹോട്ടലിൽ നിന്നല്ലാണ്ട് നമുക്ക് നല്ല ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും അതിനൊക്കെ തന്നെ നമുക്കിവിടെ ഭയങ്കര ചിലവാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തില് കോഴിക്കോട് അടിപൊളി ആണ്